നമുക്കറിയാം ഈ വിദ്യാഭ്യാസം എന്നുള്ളത് ഏതൊരു കുട്ടിയുടെയും അവകാശമാണ് അത് ഒരാളും കൊടുക്കണ്ട ഔദാര്യം അല്ല ഏതൊരു കുട്ടിക്കും ചെറിയ കുട്ടിക്കും

പക്ഷേ കുറേ കുട്ടികൾ സാമ്പത്തിക പ്രശ്നം കാരണം ഇതൊരു വിദ്യാഭ്യാസം നേടാൻ കഴിയാത്ത സാഹചര്യത്തിലുള്ള കുട്ടികൾ ഒരുപാട് നമ്മളുടെ ചുറ്റും ഈ ഈ ഒരു ജനറേഷനിൽ പോലും ഈ ഒരു നൂറ്റാണ്ടിൽ പോലും നമുക്ക് ചുറ്റും ജീവിച്ചിരിക്കുന്ന കുട്ടികളുണ്ട് ഇവർക്കൊക്കെ ഏറ്റവും കൂടുതൽ ആശ്വാസമായി വരുന്നതാണ് എന്ത് ഗവൺമെൻറിൻ്റെ സ്കോളർഷിപ്പുകൾ അതുപോലെ തന്നെ ബാക്കിയുള്ള പ്രൈവറ്റ് കമ്പനീസ് അല്ലെങ്കിൽ പ്രൈവറ്റ് ഇത് കണക്ക് ഓരോ കമ്മിറ്റികൾ ഓർഗനൈസേഷൻസ് ഇവരൊക്കെ കൊടുക്കുന്ന സ്കോളർഷിപ്പ്

ഈ വിദ്യാഭ്യാസം തുടരാനുള്ള ഒരു സഹായം നൽകുക എന്നുള്ളതാണ് എന്ത് ഈ ഒരു സ്കോളർഷിപ്പിൻ്റെ പ്രധാനമായിട്ടുള്ള ഉദ്ദേശം

സുകന്യ സദ് സമൃദ്ധി പദ്ധതി അതായത് പെൺകുട്ടികളുടെ വിദ്യാഭ്യാസത്തിന് വിദ്യാഭ്യാസം കുറച്ചും കൂടി പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള നമ്മുടെ കേരള സർക്കാർ കൊടുക്കുന്ന ഒരു സ്കോളർഷിപ്പാണ് ഈ ഒരു സുകന്യ സദ് സമൃദ്ധി പദ്ധതി എന്നുള്ളത് അതുപോലെ തന്നെ ദേശീയ തലത്ത് നോക്കുകയാണെങ്കിൽ അവിടെയും സ്ത്രീകൾക്ക് കുറേ സ്കോളർഷിപ്പുകൾ കിട്ടുന്നുണ്ട് ഉദാഹരണത്തിന് ഒരു ഇന്ദിരാഗാന്ധി സിംഗിൾ ഗേൾ ചൈൽഡ് സ്കോളർഷിപ്പ് അതായത് ഒരേ പെൺകുട്ടിക്ക് പോസ്റ്റ് ഗ്രാജുവേറ്റ് പഠനത്തിനായി ഗവൺമെൻറ് കൊടുക്കുന്ന ഒരു ഇതാണ് എന്ത് ഇന്ദിരാഗാന്ധി സിംഗിൾ ചൈൽഡ് സ്കോളർഷിപ്പ് എന്നുള്ളത്